ഹലോ നിങ്ങൾ പുതുതായി ഒരു ഹോട്ടൽ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു ഞാനിപ്പോൾ കുറച്ച് ദൂരെ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ ഹോട്ടലിൽ എന്താണ് പുതുതായി സ്പഷ്യലായിട്ടുള്ള വിഭവങ്ങൾ എന്തെങ്കിലുമുണ്ടോ കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനും എൻ്റെ കൂട്ടുകാരും ആ വഴി വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പ്രത്യേക തരം എന്തെങ്കിലും ഫുഡുകൾ ഉണ്ടെങ്കിൽ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നോർത്ത് ഇന്ത്യനോ വിദേശ ഫുഡുകളോ ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ്കളുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റുകളും ഒന്നറിയണം എന്നുണ്ട് എന്തൊക്കെ ഏതുതരത്തിലാണത് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞാലും നല്ലതായിരുന്നു ഏതാണ് അവിടുത്തെ സ്പെഷ്യൽ എന്നറിഞ്ഞാൽ എ എത്ര തരം സ്പെഷ്യൽ ഭക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ എന്നാൽ അടുത്താഴ്ച നമ്മൾ അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും സ്പെഷ്യൽ ഇതുവരെ നമ്മുടെ നാട്ടിൽ കിട്ടാത്തതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയുമോ